മൂന്ന് എഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ട് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ഒന്ന് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്